അതൊരു കാലത്ത് അതിൻ്റെ ഉപയോഗം കൂടുന്നൂ എന്ന് വിചാരിച്ച് അത് അൺ അണ്ണിൻസ്റ്റോൾ ചെയ്യാനുള്ള തീരുമാനമെടുത്തതാണ് പക്ഷെ പിന്നെയും ഒന്നാലോചിച്ചു അതിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലോകവീക്ഷണം കിട്ടുന്നത് അത് എടുത്തു കളഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനത്തെ വിവരം കിട്ടാൻ വേറെ മാർഗ്ഗവും കുറയുകയാണ് ഇപ്പോഴത്തെ കാലത്ത് പത്രം വായന പോലും നടക്കാൻ ചെയ്യാനുള്ള സമയമില്ലാത്ത കാലത്ത് ഈ ഇൻസ്റ്റഗ്രാമും യൂറ്റൂബും വഴിയാണ് നമ്മൾ ബാക്കി വാർത്തകൾ എല്ലാം അറിയുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ വാർത്തകളായാൽ പോലും അഥവാ എനിക്ക് കിട്ടേണ്ട കുറേ അറിവുകൾ ആയാൽ പോലും നമ്മുടെ പാഠപുസ്തകങ്ങളിലില്ലാത്ത അറിവുകളായാൽ പോലും എനിക്ക് ഈ യൂറ്റൂബായാലും അഥവാ ഇൻസ്റ്റാഗ്രാമായാലൂം എനിക്ക് കിട്ടിയിട്ടുണ്ട് ലോക വാർത്തകൾ പോലെ നമ്മുടെ സ്റ്റോക് മാർക്കറ്റ് അതാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നുള്ള വാർത്തകളെല്ലാം ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് അറിയാൻ സാധിക്കും